ആ ഹലോ ടീച്ചറേ എന്നാ ഉണ്ട് വിശേഷം ഭയങ്കര പാടെന്ന് പറയാന് പിള്ളേർ ഒക്കെ ഇപ്പോൾ വന് നോട്ടിങ്ങ് ആണ് നമ്മൾ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ തെറ്റ് കണ്ടുപിടിക്കാന് വേണ്ടി മാത്രം നടക്കുവാണ് അവർ അതൊക്കെ നമുക്കും പണിയാണ് പിന്നെ മൊത്തം എ ആ ആ നമ്മൾ എഡിറ്റിങ്ങ് ഒക്കെ നമ്മൾ അത് റെക്കോർഡ് ചെയ്ത് ഇടുമ്പോഴാണ് ടീച്ചറേ ഏറ്റവും വലിയ പണി ലൈവ് ആവുമ്പോൾ അതങ്ങ് കഴിഞ്ഞ് കിട്ടും റെക്കോർഡ് ചെയ്തിട്ട് നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ എന്നാ പാടാണെന്ന് അറിയുമോ നമ്മൾ ഓരോരോ ആപ്പിലും കയറി അത് എഡിറ്റ് ചെയ്ത് വരുമ്പോഴത്തേനും നമ്മുടെ പകുതി ഇത് പോവും ഒരു ദൂ സ്മാർട്ട് ക്ലാസ്സ്റൂം വലിയ കുഴപ്പമില്ല പക്ഷേ നമുക്ക് അല്ലാതെ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇത് വരുമ്പോൾ അടുപ്പിച്ച് ലീവ് ഒക്കെ വരുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ പോർഷന് തീര്ക്കാനൊക്കെ പോർഷൻസ് ഒക്കെ ആക്കുമ്പം ചില സമയത്ത് റെക്കോർഡിങ്ങ് ക്ലാസ്സസ് കൊടുക്കും കുട്ടികൾക്ക് കൊടുക്കണമെന്ന് നിര്ബന്ധമാണ് ഇപ്പോൾ അവര്ക്ക് എന്തെങ്കിലും റിവിഷൻ ആയിട്ടും ഇതൊക്കെ ആയിട്ടും നമ്മൾ കൊടുക്കും അതിനകത്ത് അവര്ക്ക് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് നമ്മൾ ഒരു ഒരു ദിവസം നമ്മുടെ അങ്ങ് പോയി കിട്ടും എന്നാ പറയാനാണ് ഇപ്പം പിന്നെ പിന്നെ സി ഇ സി സി ടിയും ആ

ആ ശരി സിലബസ് ഇപ്പം സിമ്പിൾ ആക്കി സിമ്പിൾ ആക്കി കുട്ടികൾക്ക് ഒന്നും പഠിക്കാൻ ഇല്ലാതാക്കിയത് പോലെയാണ് എനിക്ക് തോന്നുന്നത് ഡേറ്റ് പറയുന്നുണ്ട് ഓഗസ്റ്റ് ഓഗസ്റ്റ് ഉണ്ടാവും ലാസ്റ്റ് ആവുമ്പോഴത്തേനും ഇത് വരും എന്നാണ് പറയുന്നത് ഇത് വരെയായിട്ടും അതിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല ടീച്ചറേ എനിക്ക് അറിയില്ല ലാസ്റ്റ് ആയിട്ട് എന്തായാലും ഉണ്ടാവും എന്നാണ് പറഞ്ഞ് കേട്ടത് ആ ആ അത് ശരിയാണ് ടീച്ചർ വേണമെങ്കിൽ നമുക്ക് ഇവിടെ നേരത്തേ തുടങ്ങും സ്പെഷ്യല് ക്ലാസ് വയ്ക്കാൻ പോലും നമുക്ക് ക്ലാസ് എട്ടരയ്ക്ക് തുടങ്ങും അത് കഴിഞ്ഞ് ഒരൂ ഫൈവ് വരെ എന്തായാലും ക്ലാസ് ഉണ്ട് ടെന്തിന് ടെ എയ്റ്റ്ത്ത് മുതല് ടെന്ത് വരെ നമുക്ക് അങ്ങനെ ക്ലാസ് നടത്തുന്നത്

ആ അ ഞാന് ടീച്ചറേ അയച്ചുതരാം ഞാൻ ഇപ്പോൾ കുറച്ച് തിരക്കിലാണ് ഞാന് ടീച്ചറെ വിളിക്കാമേ ഏ ആ ശരി